അതെ അതെ ചായക്കട ആണല്ലോ ആ അറിയാം ഉദ്ദേശം എത്ര ആൾക്കാർക്ക് വേണ്ടി വരുമായിരിക്കും ആ പക്ഷേ അതിന് അതിന് എന്നാ വേണ്ടതെന്ന് വച്ചാൽ അതിൻ്റെ തലേദിവസമെങ്കിലും കറക്റ്റ് നമ്പർ പറയണം അമ്പത് മുതൽ മതി മതി അത് ആ വേണ്ട വേണ്ട തലേദിവസം പറഞ്ഞാൽമതി കുഴപ്പമില്ല ആ ആ അത് ചായയ്ക്ക് ചായയ്ക്ക് പത്ത് രൂപയാണ് ആ വിത്തൗട്ട് ആണെങ്കിൽ ഒരു രണ്ട് രൂപ കുറച്ചു തരും കുറച്ചു തരും കടി കടികളായിട്ട് നമുക്കിവിടെ ഏത്തയ്ക്ക അപ്പമുണ്ട് വടയുണ്ട് അതായത് വട എന്നു പറഞ്ഞാൽ പരിപ്പുവടയുണ്ട് ഉഴുന്നുവടയുണ്ട് ബോണ്ടയുണ്ട് സുഖിയനുണ്ട് പല പല ഐറ്റംസുണ്ട് ഇതുകൂടാതെ സാൻവിച്ചസ് വേണമെങ്കിൽ അതും സാൻ്റ്വിച്ചസും ഉണ്ട് എന്തു സാധനം വേണമെന്ന് പറഞ്ഞാൽമതി റെഡിയാക്കിത്തരാം ആ പറയാം ഈ വട വട ആ ഐറ്റത്തിനെല്ലാം പത്ത് രൂപ ഒരെണ്ണത്തിന് പത്ത് രൂപയാണെ ആ സാൻ്റ്വിച്ചാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ മുതലാണ് തുടങ്ങുന്നത് ബ്രഡ് ഉണ്ടല്ലോ ബ്രഡ് ബ്രഡുണ്ട് ബ്രഡ് കൊണ്ടുള്ള സാൻവിച്ച് വേണമെങ്കിൽ അതുമുണ്ട് എന്തെ എന്ത് ഐറ്റം വേണമെങ്കിലും ഉണ്ട് ബ്രഡ് മൊത്തം ബ്രഡ് മൊത്തം ഒന്നായിട്ടാണോ വേണ്ടത് അതോ സാൻ്റ്വിച്ചായിട്ട് വേണോ ആ ബ്രഡ് നമുക്കിവിടെ രണ്ട് സൈസ് ബ്രഡുണ്ട് പിന്നെ പ്യുവർ ഗോതമ്പിൻ്റെ ഉണ്ട് അട്ടയുടെ ഉണ്ട് പ്യുവർ ഗോതമ്പിൻ്റെ ആണെങ്കിൽ അമ്പത്തഞ്ച് രൂപയാണ് ഒരെണ്ണത്തിന് അപ്പോൾ ആ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് ആ അമ്മേ ആട്ടയുടെ വില നാല്പത്തഞ്ച് രൂപയേ ഉള്ളൂ ആ ആ ഈ പറഞ്ഞതല്ലാതെ വേറെ പ്രത്യേകിച്ച് വെറൈറ്റി ആയിട്ടൊന്നുമില്ല

ആ അത് നിങ്ങൾ എന്തു എന്ത് വേണമെങ്കിലും തരാം അത് പറഞ്ഞാൽമതി അപ്പോൾ അത് ഞാൻ നേരെ തന്നു വിടാം തന്നു വിടാം ആ കട്ടൻകാപ്പിക്ക് കട്ടൻകാപ്പി നമ്മളെ പിന്നെ ബ്രൂ ആണ് ഉപയോഗിക്കുന്നത് അത് പത്ത് രൂപയ്ക്ക് തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് ആ മതി അത്യാവശ്യം തലേദിവസം വിളിച്ചിട്ട് എത്ര നമ്പറ് ആളുണ്ടെന്നുള്ളത് പറഞ്ഞാൽമതി ആ അതുമതി പിന്നെ ഈ ചായയോ കാപ്പിയോ വല്ലതും ആ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പാത്രം നിങ്ങൾ കൊണ്ടുവരണം പാത്രങ്ങളെ നിങ്ങൾക്ക് ഡിസ്പോസിബിൾ ഗ്ലാസ്സ് ഞങ്ങൾ തന്നുവിടാം പക്ഷേ ബൾക്കായിട്ട് ഇപ്പോൾ പത്ത് എഴുപത്തഞ്ച് കാപ്പിയൊക്കെ ഒന്നിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ അതിൻ്റെ പാത്രം കൊടുത്തു വിടാറില്ല നിങ്ങൾ പാത്രം കൊണ്ടുവരണം

മറ്റ് വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ ആ ശരിയെന്നാൽ